എൻ്റെ രണ്ടാമത്തെ പ്രൊഡക്ട് എന്ന് പറഞ്ഞാൽ ഫാൻ ആണ് ഫാനിനെ കുറിച്ച് പറയാനാണെങ്കിൽ മൂന്ന് മൂന്നാല് തരം ഫാനുകൾ കാര്യങ്ങൾ ഒക്കെ ഉണ്ട് അതിൽ നമുക്ക് കൂടുതലായിട്ടും എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഉപയോഗിക്കുന്ന ഫാൻ എന്ന് പറഞ്ഞാൽ സീലിംഗ് ഫാനാണ് അപ്പം സീലിംഗ് ഫാനിനെ കുറിച്ച് പറയാനാണെങ്കിൽ നമുക്ക് നേരിട്ട് കാറ്റ് കിട്ടാനും എല്ലാ കാര്യങ്ങൾക്കും സീലിംഗ് ഫാനാണ് കുറച്ചുകൂടെ ബെറ്റർ എന്ന് വേണെങ്കിൽ പറയാം പക്ഷെ അതിൻ്റെ നെഗറ്റീവ് എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നേരിട്ട് അടിക്കുന്നതു കൊണ്ട് അതിനകത്ത് ഡസ്റ്റ് കാര്യങ്ങളൊക്കെ ഒട്ടിപിടിച്ച് ഇരിക്കുക അപ്പം അത് നമ്മുടെ ഫാൻ ഇടുന്ന സമയത്ത് അത് പറന്നിട്ട് നമ്മുടെ മൂക്കിലേക്കും വായിലേക്കും ഒക്കെ വന്ന് നമുക്ക് അലർജിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ് ഒന്ന് അപ്പം അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ അതിനും ഉണ്ട് പിന്നെ എല്ല ഏകദേശം എല്ലാ ഫാനുകൾക്കും അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പം കൂടുതലായിട്ടും സീലിംഗ് ഫാൻ ഉപയോഗിക്കുന്നവർക്ക് റൂം മൊത്തത്തിൽ കാറ്റ് കിട്ടാനും വേണ്ടിയിട്ടാണ് സീലിംഗ് ഫാൻ ഉപയോഗിക്കുന്നത് അതാകുമ്പോൾ ഇപ്പം വാർക്ക വീടിനാണ് കൂടുതലായിട്ടും അത് യൂസ് ചെയ്യാൻ പറ്റുക നമുക്ക് ഓട് ഇട്ട വീടുകളിലൊക്കെ യൂസ് ചെയ്യുന്നത് കുറച്ച് ടാസ്കാണ് അപ്പം നമുക്ക് അത് എന്താ പറയുക പോസ്സിബിളായിരിക്കില്ല ബാക്കിയുള്ള ഫാനുകളൊക്കെ ഓരോ സ്ഥലത്തേക്ക് കേന്ദ്രീകരിക്കാനും കാര്യങ്ങളൊക്കെ നമുക്ക് സാധിക്കുന്നതാണ്